ഹലോ മൊബൈൽ ടെക് ഷോപ്പാണ് ആരാണ് ആ ഓക്കെ ഏത് പ്രൈസൊന്ന് പറയുവോ മൊബൈലിൻ്റെ ഐ ഫോൺ ഉണ്ട് സാംസങ് ഉണ്ട് ഏതാണ് വേണ്ടത് ആ സാംസങ് വൺ ആൻഡ് ഹാഫ് ആണ് വരുന്നത് ലേറ്റസ്റ്റ് മോഡൽന് ഷോപ്പ് വയനാട് നമുക്ക് കൽപറ്റേലാണ് ഷോപ്പുള്ളത്

തിങ്കളാഴ്ച്ച വന്നാൽ വാങ്ങാൻ സാധിക്കും നിങ്ങൾക്ക് ഇ എം ഐക്ക് എടുക്കാനാണോ അതോ റെഡി ക്യാഷാണോ റെഡി ക്യാഷാണ് ഓക്കെ അതേപോലെത്തന്നെ ബില്ല് ചെക്കാണോ അതോ ആ ഓക്കെ അപ്പോൾ ചെക്ക് ഞങ്ങൾ സ്വീകരിക്കുന്നത് അല്ല ഒന്നൂല്ലേ കൈയ്യിൽ ക്യാഷായിട്ട് കൊണ്ടുവരിക അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫറ് ചെയ്യുക ആ ഓക്കെ കളറ് ഫോൺ ബായ്ക്ക് കവറ് ബ്ലാക്ക് ഗ്രേ ഗ്രീൻ

വേറെ കവറേ ഉള്ളൂ

ഓക്കെ എസ് റ്റൊന്റി ത്രീ അൾട്രയല്ലേ മാഡം അത് വൺ മന്ത് വാറന്റി ഉണ്ട്